എൻ്റെ പ്രദേശത്തെ കോളേജുകളിലെ വിദ്യാഭ്യാസം നിലവാരം ഉം അതിനെക്കുറിച്ച് എനിക്കത്ര ഒരു പ്രതീക്ഷയില്ല സംതൃപ്തിയുമില്ല കാരണമെന്താണെന്ന് വെച്ചാല് നമ്മള് എൻ്റെ അടുത്തുള്ള എൻ്റെ നാട് മലപ്പുറം പ്രദേശത്താണ് ഉം നമ്മുടെ അടുത്തുള്ള കോളേജുകളിലെ വിദ്യാഭ്യാസമെന്ന് വെച്ചാല് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ സബ്ജെക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും അതിനനുസരിച്ചുള്ളൊരു ഫാക്കൽറ്റി ഓരോ കോളേജിലുമില്ല നമ്മൾ താല്പര്യപ്പെട്ട് ഓരോ വിഷയമെടുത്ത് ആ കോളേജിലെത്തിച്ചേരുമ്പോള് നമുക്ക് അധികം പീരീഡും അവിടെ ഒഴിവാണ് കാരണം ഫാക്കൽറ്റിക്കുറവ് നന്നായി ബാധിക്കുന്നുണ്ട് എന്നാല് ഓരോ കോളേജും അതിനനുസരിച്ചുള്ള ഫീസ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട് ഓരോ സെമ്മിനും പതിനായിരം പതിനായിരത്തിന് ഏറെയുള്ള പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള ടീച്ചേഴ്സോ അല്ലെങ്കില് അതിനനുസരിച്ചുള്ള ഫാക്കൽറ്റി സോഴ്സോ അല്ലെങ്കിൽ ലൈബ്രറി സോഴ്സ് അതൊന്നും നമ്മുടെ ഇപ്പോഴുള്ള നിലവിലെ കോളേജുകളിലൊന്നും കാണാൻ സാധിക്കുന്നില്ല ഉം മറിച്ച് ചില സർക്കാർ കോളേജുകളില് മലപ്പുറം ഭാഗത്തുള്ള സർക്കാർ കോളേജുകളിലൊക്കെ ഫീസ് ഈടാക്കാതെ തന്നെ അതിനനുസരിച്ചുള്ള ഫാക്കൽറ്റിയും ലൈബ്രറി റിസോഴ്സസും മറ്റ് റിസോഴ്സസും കാര്യങ്ങളുമൊക്കെ നൽകുന്നുണ്ട് അതൊക്കെ വളരെയധികം വളരെ വിജയകരമായി മുന്നോട്ടുപോകുന്നുണ്ട് അതിലൊക്കെ തീർച്ചയായും സംതൃപ്തനാണ് പക്ഷെ എൻ്റെ എൻ്റെ നാടിനടുത്തുള്ള ചില പ്രദേശങ്ങളിലെ കോളേജുകളിലെ അവസ്ഥയാണ് ഞാനിപ്പോള് സൂചിപ്പിച്ചത് വളരെ നന്നായി ഫീസ് ഈടാക്കുകയും എന്നാല് അതിനനുസരിച്ചുള്ള പഠനനിലവാരമില്ലാത്ത ടീച്ചേഴ്സിൻ്റെ നിലവാരമില്ലാത്ത സർട്ടിഫൈഡ് അല്ലാത്ത ടീച്ചേഴ്സിനെ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കുന്ന ചില ഒരു ശോചനീയമായ ഒരവസ്ഥയാണ് നമ്മുടെ എൻ്റെ അടുത്തുള്ള ചില കോളേജുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത് എന്നാല് ചില കോളേജുകളില് പകുതി നിലവാരത്തിലെങ്കിലും ഏകദേശമൊരു ബേസിക് നീഡ്സെങ്കിലും കിട്ടുന്ന ചില കോളേജുകളുമുണ്ട് പക്ഷെ അധികം കോളേജുകളും നമ്മുടെയൊരു ഒരു ഫുൾഫിൽമെൻറിലേക്ക് എത്താത്ത രീതിയിലാണ് അതായത് നമ്മള് കൊടുക്കുന്ന ഫീസിന് തുല്യമായ പഠനരീതിയോ അല്ലെങ്കില് അതിൻ്റെ റിസോഴ്സസോ അല്ലെങ്കില് ടീച്ചേഴ്സോ അല്ലെങ്കില് പ്രൊഫെസേഴ്സോ ഫാക്കൽറ്റിയോ ഇല്ലാത്തൊരു അവസ്ഥയാണ് അധികമൊരു മുഴുമിപ്പിക്കാൻ കഴിയാത്തൊരു രൂപത്തിലാണ് അധികം മാനേജ്മെൻറുമുള്ളത് അതാണ് ഇപ്പോഴത്തെ നിലവാരത്തില് എൻ്റെ നാട്ടിലുള്ള അടുത്തുള്ള കോളേജുകളില് കാണാൻ സാധിക്കുന്നത് പക്ഷേ എന്നാൽ അതിന് പുറമേ ഇല്ലാത്ത അതല്ലാത്ത വേറെ കുറേയുണ്ട് നല്ല രീതിയില് കോളേജ് നിലവാരം പുലർത്തുന്ന മറ്റ് രീതിയിലുള്ള ഫാക്കൽറ്റീസുള്ള പ്രൊഫസേഴ്സുള്ള ലേബർ റിസോഴ്സുള്ള കുറേ കോളേജുകളുണ്ട് ഇതൊക്കെയാണ് എൻ്റെ നാടിൻ്റെ അടുത്തുള്ള കോളേജുകളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് പക്ഷേ നമ്മള് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് സർക്കാർ രൂപത്തിലുള്ള കുറെ സർക്കാരിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് സർക്കാർ മുന്നോട്ടുവെയ്ക്കുന്ന കുറേ കോളേജുകളില് കുറേ ആവശ്യങ്ങള് അതുപോലെ അവരുടെ പ്രൊഫസേഴ്സ് അവരുടെ റിസോഴ്സസൊക്കെ ഉള്ള കോളേജുകളുണ്ട് അതുപോലെ സ്പോർട്സ് പരമായ കാര്യങ്ങള് അത് ബേസ് ചെയ്ത് പോകുന്ന കുറേ കോളേജുകള് പിന്നെ സ്പോർട്സ് പരമായിട്ടുള്ള കുറേ കോളേജുകളൊക്കെ നമ്മുടെ നാടുകളില് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ നാടിൻ്റെയടുത്തുള്ള കോളേജുകളെക്കുറിച്ച് പറയാനുള്ളത്